ഹലോ ദിനേശനല്ലേ ഞാൻ ബീന ആൻ്റി ആയിരുന്നു മോനെ ഞാൻ ആ പറഞ്ഞ ലൊക്കേഷനിൽ അല്ല വരേണ്ടത് കേട്ടോ എനിക്ക് പെട്ടെന്ന് അവിടേ നിന്ന് ചെത്തിപ്പുഴപ്പള്ളിയിലോട്ട് വരേണ്ടി വന്നു കേട്ടോ ഒരു ആവശ്യത്തിനായിട്ട് അപ്പം മോൻ വരുമ്പോഴത്തേക്ക് ചെത്തിപ്പുഴപ്പള്ളി ഞാൻ പറയാം ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ വിളിച്ച് പറയാം ആ സ്ഥലത്തോട്ട് വരണം കേട്ടോ അവിടെ വന്ന് ആ മറ്റേ സ്ഥലത്ത് നിന്ന് എത്ര എന്നാൽ കിലോമീറ്റർ കൂടുതൽ ഉണ്ട് ഇവിടേക്ക് വരാനെന്നുള്ളത് മോൻ അതിന് അനുസരിച്ചുള്ള പൈസ മോൻ പറഞ്ഞാൽ മതി തരാം കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ വിളിക്കാം മോനെ ഞാൻ ഇപ്പോൾ ആ കാര്യം വന്ന കാര്യം ചെയ്യത് കൊണ്ടിരിക്കുന്നതെ ഉള്ളു

പ്രശ്നമില്ല അത് പെട്ടന്ന് ഒരു ചേഞ്ച് ഉണ്ടായതാണ് മോന് പ്രശ്നമില്ലല്ലോ അല്ലെ ഓക്കേ പിന്നെ എന്നിട്ട് നമുക്ക് ഒരു ഇന്ന് പോകുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് കുഴപ്പമില്ലല്ലോ എത്ര രൂപയാണേലും തന്നോളാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഷോപ്പിങ്ങും ഉണ്ട് അതും കൂടെ നടത്തണം പിന്നെ ലൊക്കേഷൻ മാറ്റി പറഞ്ഞത് കൊണ്ട് വിഷമം ഉണ്ടോ ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ ഓക്കെ താങ്ക് യു ദിനേശ് ഓക്കെ കാണാം കേട്ടോ ബൈ ടേക്ക് കെയർ